ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി മൂന്ന് പതിനഞ്ച് നാല് രണ്ടായിരത്തി മൂന്ന് നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒൻപത് നാല് രണ്ടായിരത്തി ഏഴ്